എൻ്റെ സെക്കെൻഡ് പ്രോഡക്റ്റ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഫേസ് ക്രീം ആണ് ഫേസ് ക്രീം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഫേസ് ക്രീമിന് നെഗറ്റീവ് മാത്രമേ പറയാൻ ഉള്ളൂ കാരണന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പത്തെ പെൺകുട്ടികളൊക്കെ ഏറ്റവും കൂടുതല് യൂസ് ചെയ്യുന്നത് ഫേസ് ക്രീം ആണ് അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കി ഫേസ് ക്രീമിൻ്റെ അതായത് ഫേസ് ക്രീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾക്കൊക്കെ കൂടുതൽ അതായത് എത്രയോ പുട്ടി ഇട്ടിട്ടാണ് പെൺകുട്ടികലോക്കെ ഇപ്പം നടകുവാ അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മടെ അതായത് സ്കിന്നിൻ്റെ കോശങ്ങളിലേകൊക്കെ ഇറങ്ങിയിട്ട് നമക്ക് പല അസുഖങ്ങളും കാര്യങ്ങളക്കെ ഉണ്ടാകും എന്നുള്ളത് അവരാരും അറിയുന്നില്ല അപ്പം എന്ന് പറഞ്ഞാ ഇവർക്കു കുറെ മേക്കപ്പ് ഇടണം ലിപ്സ്റ്റിക്ക് ഇടണം ലിപ്സ്റ്റിക്കിലൊക്കേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര കളറൊക്കെയാ അപ്പ അതൊക്കെ നമ്മടെ വയറ്റിലേയ്ക്കല്ലേ പോകുക പിന്നെന്ന് വെച്ചിട്ടിണ്ടെങ്കില് അതായത് ഈ മേക്കപ്പ് ഇടുന്നതിന് പുറമേന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് പെട്ടെന്ന് പോകാതെ ഇരിയ്ക്കാൻ വേണ്ടി വരെ വേറെയും മേയ്ക്കപ്പും കാര്യങ്ങളക്കെ മുഖത്ത് അതായത് വേറെയും ക്രീമുകളും കാര്യങ്ങളക്കെ ഇടുന്ന ആൾക്കാരാണ് ഇപ്പം ഇപ്പത്തെ പെൺകുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കി അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് ഒക്കെ വളരെ കുറയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമക്ക് ഇൻസ്റ്റാഗ്രാമില് നമ്മള് ടീവീലക്കെ കാണിക്കും യൂത്ത് ഫേസ് ക്രീം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫേയ്സ് ക്രീം അതായത് വെളുത്ത് പാറ് എന്ന് പറഞ്ഞിട്ട് കുറെ പേര് അത് തേച്ച് എല്ലാരും വെളുക്കുവൊക്കെ ചെയ്യും പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടേ ഇതിൻ്റെ യൂസേജ് കൊറയ്ക്കമ്പത്തേക്കും നമ്മള് പെട്ടെന്ന് കറുക്കും അപ്പം നമ്മളത് ഓട്ടോമാറ്റിക് ആയിട്ട് മേടിക്കും അപ്പം അതിന് വേണ്ടി ഉള്ളൊരു ട്രിക്ക് ആയിട്ട് അവര് കുറെ കെമിയ്ക്കലും കാര്യങ്ങളക്കെ അത് കരളിനെ വരെ ബാധിക്കും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളക്കെ ആയിട്ട് ഇപ്പ ടീവീലക്കെ കാണിയ്ക്കുന്നുണ്ട് അപ്പം മാക്സിമം നമ്മളിതൊന്നും യൂസ് ചെയ്യാതിരിയ്ക്കുക